എൻ്റെ സമൂഹത്തിൽ കായികവിനോദത്തെ കുറിച്ച് ഗ്രാമീണർക്ക് നല്ല അഭിപ്രായമാണ് അവർ പറയുന്നത് കായികവി കായികവിനോദത്തിൽ ഏർപ്പെടണം ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെയുള്ള എല്ലാ ഗെ ഗെയിമുകളും കളിക്കേണ്ടതാണ് അല്ലാതെ മൊബൈലിലേക്ക് നോക്കി എപ്പോഴും ഇരിക്കാതെ എൻ്റെ ഗ്രാമീണർ ഏറ്റവും കൂടുതൽ പറയുന്നത് മൊബൈലിൽ നോക്കിയിരിക്കാതെ പുറത്തിറങ്ങി കളിക്കട കളിക്കട എന്നു മാത്രമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാനും അതിൽ യോജിക്കുന്നു കാരണം അവർ പറയുന്നത് കറക്ട് ആണ് കാരണം നമ്മുടെ കായികവിനോദങ്ങൾ ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളുടെ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ കാലിൻ്റെയും കയ്യിടെയും ആരോഗ്യമായാലും അങ്ങനെയുള്ള പല കാര്യങ്ങളും കായികവിനോദത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലാതെ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കായികവിനോദമാണ് ഒന്നും കിട്ടില്ല ആ നമ്മുടെ കണ്ണിനു മാത്രം കണ്ണിനും തലച്ചോറിനും കൊ കുഴപ്പങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളു പല രീതിയിലുള്ള കായികവിനോദങ്ങളുണ്ട് ഫുട്ബോൾ ക്രിക്കറ്റ് നം ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ ആരും കളിക്കാറില്ല നമ്മളെയൊക്കെ സമയത്താണെന്നുണ്ടേൽ കായികവിനോദത്തിൽ കൂടുതൽ പേരും ഏർപ്പെടുന്നതു കാണാമായിരുന്നു പിന്നെ നമ്മളുടെ ഗ്രാമീണരേറ്റവും കൂടുതൽ പറയുന്നത് അവർ പറ നിങ്ങളൊന്നും കളിക്കുമ്പോലെ അല്ലായിരുന്നു നമ്മൾ കളിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മളുടെ കൂടെ കളിക്കാനായിട്ട് ആയിട്ട് വരുമായിരുന്നു നിങ്ങളൊക്കെ കളിക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രായത്തിലുള്ള പകുതിയിൽ പകുതി പേർ മാത്രമല്ലേ വരണത് കളി നമ്മുടെ നമ്മളൊക്കെ കളിക്കുന്ന സമയത്താണെങ്കിൽ ഇത്രയൊന്നും അല്ല വരണത് ഈ നാടിലുള്ള എല്ലാ ആളുകളും അവിടെ കളിക്കുന്ന സമയത്താണെങ്കിൽ എത്തും അന്നൊന്നും ഈ ഫോൺ അങ്ങനെയുള്ള ഒന്നുമില്ലായിരുന്നു നിങ്ങളതുകൊ നിങ്ങളെയൊക്കെ സമയത്ത് അതൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആരും വരാത്തത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗ്രാമീണരുടെ അഭിപ്രായം അപ്പോൾ ഗ്രാമീണർ പറയുന്നതിനോട് ഞാനും കൂടുതൽ ഞാനും അവർ പറയുന്നതിനോട് യോജിക്കുന്നുണ്ട് കാരണം ഒരുപാട് പേർ കളിക്കാൻ വന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ കളിക്കാനും കളിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട് അപ്പോൾ ഗ്രാമീണർ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വ്യാ വ്യാ ഗ്രാമീണർ പറയുന്നത് കായിക കായികവിനോദത്തിൽ ഏർപ്പെടണം എന്ന് മാത്രമേ പറയാറുള്ളൂ അവർ പറയുക അവർ പറയുന്നതെന്നു പറഞ്ഞാൽ നിങ്ങളെപ്പോഴും കായികവിനോദത്തിൽ ഏർപ്പെടുക കുറച്ച് പഠിച്ച് അതിന് ശേഷം കായികവിനോദത്തിലേർപ്പെടുക എന്നു തന്നെയാണ് അവർ പറയുന്നത്